റേഡിയോ ടെലിവിഷൻ അച്ചടി തുടങ്ങിയ മാധ്യമങ്ങളിൽ മലയാള ഭാഷ ആ വളരെ നല്ല പുരോഗമനം പുരോഗമനത്തിൽ തന്നെയാണ് കാരണം എന്താണ് ഇപ്പോൾ കൂടുതലും നമ്മൾ മലയാള ഭാഷയെ കാണുന്നത് ഈ ഒരു മൂന്ന് നാല് സംഭവങ്ങളിൽ മാത്രമുള്ളൂ അതായത് റേഡിയോയിലും റേഡിയോയിൽ പിന്നെ വായിക്കുക അങ്ങനത്തെ സാധനമല്ല കേട്ട് കൊണ്ട് കേട്ട് കൊണ്ടും അതുപോലെ തന്നെ മാധ്യമങ്ങളിൽ പ്രത്യേകിച്ചും മാധ്യമങ്ങളിൽ മാത്രമേ ഇപ്പോൾ മലയാള ഭാഷ കൂടുതലായിട്ട് നിൽക്കുന്നുള്ളൂ ബാക്കിയുള്ള ഇടത്തൊക്കെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പഴോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവം സംസാരിക്കുക ആണെങ്കിലും സ്പീക്ക് ചെയ്യുക ആണെന്നുണ്ടെങ്കിലും ഒക്കെ ഇപ്പോൾ ഞാൻ തന്നെ സംസാരിക്കുക ആണെണുന്നുണ്ടെങ്കിലും കൂടുതലും നമ്മൾ മലയാളത്തിൽ അല്ലാതെ ഇംഗ്ലീഷിലാണ് കൂടുതൽ മീൻസ് ഓരോ വേർഡ്സും പറയുന്നത് മലയാള ഭാഷയുടെ ഇത് കൂടുതലായിട്ടും വരുന്നത് എവിടെ എന്നു വച്ചാൽ മാധ്യമങ്ങളും റേഡിയോലും ടെലിവിഷനിലും അച്ചടി തുടങ്ങിയ സംഭവങ്ങളിലൊക്കെ തന്നെയാണ് അതുപോലെ തന്നെ ഓരോ നമ്മളുടെ പതിനാല് ജില്ലകളിലും വ്യത്യസ്ഥ സ്ലാംഗാണ് മലയാളം എന്ന് പറയാൻ മീൻസ് മലയാളം എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും നമ്മളെ സ്ളാംഗ് പല തരത്തിലാണ് മലപ്പുറത്ത് വേറെ ആണെന്നുണ്ടെങ്കിൽ കാസർഗോഡ് വേറെ ആണ് തിരുവനന്തപുരം വേറെ ആണ് നമ്മൾ ചില ഇവിടത്തെ വാക്കുകളൊക്കെ ചില അവിടത്തേക്ക് പോകുമ്പോൾ തെറിയാവാം അല്ലെങ്കിൽ മോശപ്പെട്ട എന്തെങ്കിലും വാക്കുകളാവാം അങ്ങനെയൊക്കാണ് അപ്പം സംസാരിച്ച് നമ്മൾക്ക് മനസ്സിലാവുന്നതിനേക്കാൾ കൂടുതലും മാധ്യമങ്ങളിൽ നമ്മൾക്ക് നല്ല നല്ല നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട് അപ്പോൾ മാധ്യമങ്ങളിലൊക്കെ മലയാള ഭാഷ എന്ന് പറഞ്ഞാൽ നല്ല വൃത്തിക്ക് തന്നെ അവർ നല്ലോണം നല്ല ചേലുക്കെന്നെ നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് പിന്നെ എൻ്റെ ഹോസ്റ്റലിൽ തന്നെയാണെന്നുണ്ടെങ്കിലും ഞങ്ങൾ ഒരു റൂമിൽ നാല് പേരാണെന്നുണ്ടെങ്കിൽ നാലും നാല് സ്ഥലത്ത് നിന്നാണ് ഇപ്പോൾ മലപ്പുറത്ത് തന്നെയാണെന്ന് ഉണ്ടെങ്കിലും മഞ്ചേരിയുള്ള ഒരാൾ സംസാരിക്കുന്ന മാതിരിയാവില്ല തിരൂർ നിന്ന് സംസാരിക്കുന്ന ഒരാൾ നമ്മളുടെ ജില്ലയിലെ തന്നെ ഒരുപാട് സ്ഥലത്ത് വ്യത്യസ്ഥമായിട്ട് എന്താണ് സ്ളാംഗ് വരുന്നുണ്ട്

എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് എഴുതുന്നത് ഓരോ ഹെഡിംഗ് ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിലുള്ള കണ്ടൻ്റ് ആണെന്നുണ്ടെങ്കിലും മനസ്സിലാവുന്ന വിധത്തിൽ തന്നെയാണ് എല്ലാവർക്കും കാണിച്ച് തരുന്നത് അപ്പോൾ ഇതിലൊക്കെ തന്നെ നമ്മൾക്ക് ശരിക്കിനിപ്പൊ കൂടുതലായിട്ടും നമ്മൾ സംസാരിക്കുന്നതിനേക്കാൾ മീൻസ് അല്ലെ സംസാരിക്കുക ആണെന്നുണ്ടെങ്കിലും ഇംഗ്ലീഷും സംഭവങ്ങളുമൊക്കെ വരുന്നുണ്ട് പക്ഷെ നമ്മളെ മാധ്യമങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് അതിൻ്റെ ഇടയിൽ കൂടെ ഇംഗ്ലീഷ് വരില്ലല്ലോ അപ്പോൾ ഇത് മലയാള ഭാഷ നല്ല രീതിയിൽ തന്നെ മാധ്യമങ്ങളിലൊക്കെ പ്രയോഗിക്കുന്നുണ്ട്